ഇപ്പോൾ ഇന്നത്തെക്കാലത്ത് ബാങ്കുകൾ ഒരുപാട് ബാങ്കുകൾ അടുത്തടുത്ത് ഉള്ളൊരു സമയമാണ് എല്ലായിടത്തും തന്നെ ഏത് ഗ്രാമങ്ങളിലായാലും സിറ്റികളിലായാലും ബാങ്കുകൾ ഒരുപാടുണ്ട് ബാങ്കുകളിൽ പ്രായമായ ആൾക്കാരൊക്കെ എത്രത്തോളം പ്രാധാന്യം ഉണ്ടെന്നു ചോദിച്ചാൽ ഏത് നാട്ടിലാണ് ആ ഒരു പ്രാധാന്യം ഉള്ളത് അങ്ങനൊരു പ്രാധാന്യമുള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല കാരണം നമ്മളെ ആവശ്യങ്ങൾക്ക് നമ്മൾ ബാങ്കിൽ പോകുന്നു ക്യൂ നിൽക്കുന്നു കഴിയുന്നു വരുന്നു പ്രായമായ ആൾക്കാർക്ക് വേണ്ടിയിട്ട് വീടുകളിൽ വന്നിട്ടോ ഒന്നും ചെയ്യുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല അങ്ങനൊരു സമ്പ്രദായം വളരെ കുറവാണ് നമ്മുടെ നാട്ടിൽ വല്ല അക്കൗണ്ട്സ് എടുക്കാനും ഇങ്ങനെ എന്തെങ്കിലും ഒരാവശ്യങ്ങൾക്ക് വേണ്ടി മാത്രം അവരുടേതായ നേട്ടങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ആവശ്യങ്ങൾക്ക് മാത്രമേ ഏജന്റുമാരൊക്ക വരാറുള്ളൂ അല്ലാതെ ഒരു മറ്റ് ആവശ്യങ്ങൾക്ക് നമ്മുക്കെന്തെങ്കിലും ബാങ്കുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചെയ്യാനോ ഒന്നും ഏജന്റുമാർ വരാറില്ല സാധാരണ നമ്മുടെ നാട്ടിൽ നിന്നും ചെയ്യുന്നതു വച്ച് നോക്കുമ്പം അങ്ങനയൊന്നും വരാറില്ല